ഹലോ ആ പറഞ്ഞോ മോനെ

ആ അതൊന്നും ആയില്ല മോനെ

സെക്യൂരിറ്റി മ്മ്

ആ ഞങ്ങളിപ്പം രണ്ട് പേരേ ഉള്ളൂ പിള്ളേരൊന്നും ഇല്ല മ്മ് മ്മ് മ്മ് മ്മ്

മ്മ് ആ ആ വൈകിട്ട് നോക്കട്ടെ

മ്മ് ഞങ്ങള് എന്തുവാ പുത്തൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്

മ്മ് ആ ആ അറിയാം അറിയാം അറിയാം

ഓക്കെ ഓക്കെ താങ്ക്യൂ